വിനോദസഞ്ചാരികളേറ്റോം കൂട്തലാകർഷിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് എന്നുരി എറണാകുളം കൊച്ചീന്ന് പറയുന്ന ഈ സ്ഥലം പണ്ടക്കെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനും കടലും കായലുവൊക്കെ കാണാനാണ് വിനോദസഞ്ചാരികളിങ്ങോട്ട് ബോട്ടിങ്ങിനക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അതിൽ കൂട്തലും വിനോദിക സഞ്ചാരികളെ കൂടുതൽ ആകർഷിക്കുന്ന ഇവിടുത്തെ മാള്കൾ അതേപോലെ മാർക്കറ്റ്കൾ മെട്രോ റെയിൽ അതേപോലെ വാട്ടർ മെട്രോ ഇതക്കെയാണ് കൂട്തലായിട്ട് വിനോദസഞ്ചാരികളെ ഇങ്ങോട്ട് ആകർഷിക്കുന്നത് അത് അതൊക്കെ ആ എക്സ്പീരിയൻസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാള്കളിലാണ് ഏറ്റോം കൂട്തൽ തിരക്ക് ഇവിടെ നമ്മുടെ ഈ എറണാകുളം ഭാഗത്തെ കൂട്തൽ ചെന്നാലും നല്ല തിരക്കുള്ളതാണ് അതേപോലെ തന്നെ ആണെങ്കിലും മെട്രോ റെയിൽ കയറാതെ ആളുകൾ അത് കാണാനും ആസ്വദിക്കാനൊക്കെ ആയിട്ട് വരാറുണ്ട് വാട്ടർ മെട്രോയും അതേപോലെ ആളുകൾ വന്ന് കാണാനും ആസ്വദിക്കാനക്കെ ബോട്ടിങ്ങും പണ്ടത്തെ ആ പണ്ടെ ഉണ്ടായിരുന്ന ബോട്ടിങ്ങും കായലും കടലക്കെ ആസ്വദിക്കുന്നതിലും ഉപരി ആയിട്ട് ഇപ്പോൾ ഇങ്ങനെ ഉള്ള സ്ഥലങ്ങളിലാണ് ഏറ്റോം കൂടുതൽ ആളുകൾ കൂട്തലായിട്ടും വന്ന് കണ്ടിട്ടുണ്ട്